ഒൻപത് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഏഴ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തൊൻപത് ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് രണ്ടു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്താറ് അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച്